ഞാൻ ആഗ്രഹിച്ച് ഫസ്റ്റ് ടൈം ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മീഷോയിൽ നിന്നും ഒരു കുർത്തിയാണ് ഓഡർ ചെയ്തു വാങ്ങിയത് പിച്ചറിൽ കണ്ടപ്പോൾ സൂപ്പറായിരുന്നു നല്ല കളറായിരുന്നു മെറ്റീരിയലൊക്കെ സൂപ്പറായിരുന്നു ബട്ട് വന്നപ്പം കണ്ടപോലേ അല്ല കളറൊക്കേ വേറെ ലോ കോളിറ്റി മെറ്റീരിയലായിരുന്നു ലെങ്ത്തൊക്കെ പ്രതീക്ഷിച്ച പിക്ച്ചറിൽ കണ്ട അത് പോലെയൊന്നുമല്ലാ ലെങ്ത്തൊക്കെ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ പർച്ചേസ് തന്നെ ഫ്ലോപ്പായി തുണിക്കൊക്കെ എന്തോ ഒരു മണമോ എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ആയിരുന്നു ഫൈനലീ ഞാനത് പിന്നെ റിട്ടേൺ ചെയ്ത് വിടുകയാരുന്നു